ചെറുപ്പം തൊട്ടേ പൂക്കളോടും ചെടികളോടും വളരെ ഇഷ്ടത്തോടുകൂടിയാണ് ഞാൻ വളർന്നത് എന്റെ ചുറ്റുപാടുകൾ അങ്ങനെ ആയിരുന്നു ചെടികളെ സ്നേഹിക്കുകയും ചെടികൾ നട്ടുവളർത്തുന്നതും ചെടിയിൽ പൂവിരിഞ്ഞു നിൽക്കുന്നത് കാണാനും ഒരുപാട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ വലുതാകുന്തോറും ഞാൻ ആ ചെടികളെ സുശ്രൂഷിക്കാനും ആ ചെടികളിലെങ്ങനെ പൂക്കളുണ്ടാകുന്നതെന്നും എന്നു മനസിലാക്കാൻ തുടങ്ങി കൂടുതൽ പൂക്കൾ വിരിയുന്നത് എങ്ങനെയായിരിക്കും അത് ഓരോ ആഹ് ചെടികളെപ്പറ്റി ഒരുപാട് അറിവും കാര്യങ്ങളും ഉള്ളവരെ കാണുമ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കുകയും അതിനുള്ള അറിവ് അവർ പകർന്നു തരികയും അതിനനുസരിച്ച് ചെടികൾ സുശ്രൂഷിക്കുകയും ചെയ്യാറുണ്ട് ആ ചെടികളിലെ ഒരു ചെടി നട്ടുകഴിഞ്ഞാൽ ആ ചെടിക്ക് ഏതൊക്കെ വളങ്ങൾ ചെയ്യണമെന്നും ആ ചെടികളിൽ വരുന്ന അണുക്കൾ പുഴുക്കൾ ഓരോ ചെടി പൂവിന്റെയും മൊട്ടുകൾ അതിലൊക്കെ ഉണ്ടാകുന്ന അണുബാധ അതൊക്കെ എങ്ങനെ ആണ് അതിനെ നശിപ്പിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനുള്ള മരുന്നുകളും ഒക്കെ ചെയ്ത് കൂടുതലായിട്ട് ചെയ്തു വരുന്നത് ശരീരത്തിനും നമ്മൾക്കും ആ മനുഷ്യനും ദോഷമല്ലാത്ത രീതിയിലുള്ള വീട്ടിൽത്തന്നെ ഉണ്ടാക്കുന്ന ലായനികൾ ചേർത്ത് അണുക്കളെ നശിപ്പിക്കുകയും നമ്മൾക്ക് മറ്റുള്ളവർക്ക് ദോഷമല്ലാത്ത രീതിയിൽ ആ ചെടികളെ വീടിന് ചുറ്റും കാടുകൾ വരാതെയും ആ ചെടികളെ വേണ്ടവിധത്തിൽ വച്ചുപിടിപ്പിക്കാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടീനെ പരിപാലിക്കുന്നത് അതിന് കൂടുതലായിട്ട് ചാണകപ്പൊടി അനങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുന്നത് മുട്ടയുടെ തോട് പൊടിച്ച് വേസ്റ്റ് വെള്ളം അത് വേസ്റ്റ് നീക്കം ചെയ്ത് അരിച്ച് എടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയും പിന്നെ പുഷ്പം പൂവ് ഇട്ടു കഴിഞ്ഞാൽ ആ പൂവ് കൊഴിഞ്ഞുപോകുമ്പോൾ ആഹ് അതിന്റെ ഓരോ മുകുളം വച്ച് വെട്ടി മാറ്റുകയും ആ നടാൻ പറ്റിയ ഭാഗം എടുത്ത് വേറെ നട്ട് മുളപ്പിക്കുകയും അങ്ങനെ ചെടികളെ നമ്മൾ പരിപാലിക്കുന്നു പിന്നെ വെള്ളം കൂടുതൽ വേണ്ട ചെടിക്ക് വെള്ളം കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയും വെള്ളം മിതമായ രീതിയിൽ വെള്ളം വേണ്ടതിന് മിതമായ രീതിയിൽത്തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ചെടികൾ ചീഞ്ഞുപോകാൻ ചാൻസുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടികളെ പരിപാലിക്കുന്നത് പിന്നെ കാട് നിറയാതെ തന്നെ എല്ലാ ചെടിച്ചട്ടികളിൽ ആണെങ്കിലും ചെടിച്ചട്ടികളിൽ കാട് കയറാതെ നോക്കുകയാണെങ്കിൽ ആ ചെടി നന്നായിട്ട് തഴച്ച് വളരുകയുള്ളൂ പിന്നെ തണ്ട് ചീയൽ അങ്ങനെ ഉള്ള രോഗങ്ങൾ ചില ചെടികളിൽ വരാറുണ്ട് അതിനു വേണ്ട മരുന്ന് ലായനി ആക്കി നമ്മളതിന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു കൂടുതലായിട്ടും ഉറുമ്പ് ശല്യം ഉണ്ടാവാറുണ്ട് ചില ചെടികളിൽ ഉറുമ്പ് കയറി തണ്ട് തുളയ്ക്കുകയും അതേപോലെത്തന്നെ വണ്ട് ഈച്ച കൂടുതലായിട്ട് വരുന്നത് പുഴുക്കളാണ് അതിനെയൊക്കെ നശിപ്പിക്കാൻ നമ്മൾ ഓരോ ദിവസം ഓരോ ചെടികളിലൂടെ നോക്കി പോകണം അപ്പോൾ ഏത് ചെടികളിലാണ് ഈ അണുക്കള് വരുന്നത് ആ ചെടീനെ വേറെത്തന്നെ മാറ്റിനിർത്തി അതിലുള്ള ആ അണുബാധ ആദ്യം നീക്കം ചെയ്യണം അല്ലെങ്കിൽ മറ്റ് ചെടികൾക്ക് പടർന്നു പിടിക്കാനും ചാൻസുണ്ട് അനങ്ങനെയൊക്കെയാണ് ചെടീനെ നമ്മൾ പരിപാലിക്കുന്നത്